ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാൻ്റ്മാർക്കുകളെന്നു പറയുന്നത് ഫസ്റ്റ് തന്നെ താജ്മഹലാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന താജ്മഹൽ ആഗ്ര നഗരത്തിലാണ് സ്ഥിതിചെയ്യുന്നത് പിന്നെ ഇത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഉടെ ഓർമ്മയ്ക്കായി നിർമിച്ചതാണ് രണ്ടാമതായി പറയുമ്പോൾ ഗോൾഡൺ ടെംപിൾ അഥവാ സുവർണ്ണ ക്ഷേത്രം അമൃത്സറിൽ സ്ഥിതിചെയ്യുന്ന ഏറ്റവും പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമാണ് ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്ന സുവർണ്ണ ക്ഷേത്രം ഇനി മൂന്നാമതായി പറയുമ്പോൾ മൈസൂർ പാലസ് ആണ് അഥവാ മൈസൂർ കൊട്ടാരം കർണ്ണാടകയിലെ മൈസൂർ നഗരത്തിലെ പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളാണ് മൈസൂർ കൊട്ടാരം പിന്നെ അടുത്തതായി പറയുന്നത് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുബൈ ബോളിവുഡ് അഭിനേതാക്കളും സിനിമാക്കളൂം പ്രശസ്തമാണെങ്കിലും മുബൈയിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണം ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് ഇനി അതുപോലെതന്നെ അടുത്തതായി പറയാനുള്ളത് കുത്തബ്മിനാറാണ് ഇത് സ്ഥിതിചെയ്യുന്നത് ന്യൂ ഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളിൽ ഒന്നാണ് കുത്തബ്മിനാർ